ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത അനുഭവം എൻ്റെ ചെറു പ്രായത്തില് എനിക്ക് താജ് മഹൽ കാണാൻ പറ്റിയതായിരുന്നു ഒന്നാമത്തെ വയസ്സിലായിരുന്നു ഞാൻ കണ്ടത് പക്ഷെ ആ ഫോട്ടോസ് അപ്പോഴത്തെ ആ ഫോട്ടോസ് എടുത്തത് വെച്ച് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് ആ ഓർമ്മകൾ ആ പ്രായത്തിൽ താജ് മഹൽ കണ്ടതും കുത്തബ്മിനാർ കണ്ടതും ലോട്ടസ് ടെമ്പിൾ എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾ എൻ്റെ മാമൻ മിലിട്ടറിയിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയുള്ള ആ ക്യാമ്പുകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു പിന്നീട് ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ ഓടിക്കുകയായിരുന്നു എൻ്റെ കൂട്ടുകാരനായ രാഹുൽ സൈക്കിൾ ഓടിക്കുന്ന ഇടയിൽ കല്ലിടുകയും അത് ടയറിൽ കുടുങ്ങി ഞാൻ വീഴുകയും ചെയ്തു അപ്പോൾ വളരെ അധികം ദയാനകമായി വലിയ മുറിവുകളാണ് എനിക്ക് ഉണ്ടായത് അപ്പോഴൊക്കെ അതൊരു ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു കാരണം ആ പ്രായത്തിൽ എനിക്ക് അത്രയും അനുഭവിക്കേണ്ടി വന്നു പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ് വരെ സി ബി എസ് ഇ ആയിരുന്നു പഠിച്ചിരുന്നത് അതിന് ശേഷം ഞാൻ പിന്നീട് എട്ടാം ക്ലാസ്സിലോട്ടേക്ക് ഞാൻ ഗവൺമെൻറ് സ്കുളിലോട്ടേക്ക് മാറുകയും അവിടെയുള്ള ഫ്രീഡം കണ്ട് അതിന് മനസ്സലിഞ്ഞ് സന്തോഷിക്കുകയുമാണ് ചെയ്തത് കാരണം നമ്മൾക്ക് നമുക്ക് അവിടെയുള്ള അവിടെ അത്രയും നമുക്ക് ഫ്രീഡമുണ്ട് എന്തും സംസാരിക്കാനും കുട്ടികള് നമ്മുടെ ഫ്രണ്ട്സുമായി ചില്ലടിക്കാനും എല്ലാം നല്ല സൂപ്പർ സ്ഥലമാണ് ഈ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത് അതേപോലെതന്നെ ഗവൺമെന്റിന്റെ ഓരോ ഈ സഹായങ്ങളും എല്ലാം കിട്ടുകയും എല്ലാം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അവിടെയൊക്കെ അത്രയും നല്ല ഓർമ്മകളാണ് ഞാൻ പുതുക്കി അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ എസ് എസ് എൽ സി പൂർത്തിയാക്കി ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഓർമ്മകൾ അത് അവിടെ തന്നെയാണ് അവിടെ ഞാൻ എല്ലാം എൻ്റെ വീട് അതിന് അടുത്ത് ആയത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് അവിടുത്തെ ഓർമ്മകൾ പുതുക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെതന്നെ പിന്നീട് ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ചെറു പ്രായത്തിൽ എനിക്ക് അമ്മൂമ്മയുടെയൊക്കെ വീട്ടിൽ പോയ ഞാനും അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും എല്ലാവരും കൂടി പുഴയിൽ കുളിക്കാൻ പോകുകയും അവിടെ എല്ലാം ഞങ്ങൾ നല്ലപോലെ കളിച്ചിരുന്നു നമ്മൾ നല്ലപോലെ ആ മൊമന്സ് എല്ലാം നല്ലപോലെ ആസ്വദിച്ചിരുന്നു പിന്നീട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തിലോട്ട് പോകുകയും അതെല്ലാം നല്ല ഒരു ആ മിസ്സിംഗ് ആയിരുന്നു പക്ഷെ ആ പ്രായത്തിൽ അതൊരു നല്ല ഓർമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് ഒരു ഗ്രാമ പ്രദേശത്താണ് കുറേ ഗ്രാമങ്ങളും വെള്ളവും വെള്ളച്ചാട്ടവും പുഴകളും തീരങ്ങളും മലകളും പാടവും എല്ലാം കാണാൻ പറ്റുമായിരുന്നു നല്ല രസമാണ് സന്ധ്യ സമയങ്ങളിൽ അവിടെ ഇരുന്നു ഞങ്ങൾ എല്ലാവരും കളിക്കുമായിരുന്നു അതേപോലെതന്നെ പിന്നീട് പറയുകയാണെങ്കിൽ സന്ധ്യാ സമയങ്ങളിൽ ഞങ്ങൾ അവിടെ കൊച്ച് കൊച്ച് കളികൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഫോണിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ കാലത്ത് കൊച്ച് കൊച്ച് കളികൾ കല്ലെറിയുക ഒളിച്ചു കളി അങ്ങനെയുള്ള കൊച്ച് കൊച്ച് കളികൾ ഞങ്ങൾ നല്ലപോലെ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഉള്ള സന്തോഷം ഞങ്ങൾക്കന്ന് ആ കൊച്ച് കൊച്ച് കളികളിലൂടെ സാധിക്കുമായിരുന്നു പിന്നീട് അങ്ങോട്ട് അതുകൾ വെറും ഒരു ഓർമ്മയായി മാറി എനിക്ക് എല്ലാം അത് എന്തുകൊണ്ടാണ് അത്രയും മറക്കാത്ത ഓർമയെന്ന് വിചാരിച്ചാൽ കാരണം അവിടെയൊക്കെ അത്രത്തോളം നമുക്ക് സന്തോഷകരമായി നമുക്ക് നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും നമ്മളെ സഹോദരങ്ങളുടെയും ഒപ്പം ചിലവഴിച്ച ആ സമയം അത് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല എല്ലാം ഓർമകളാണ്